പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും ഇടയിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമാണ് സാങ്കേതികവിദ്യ അത് ഉപയോഗിച്ചുള്ള പരിചയമാണ് ഈ പുതു തലമുറക്കുള്ളത് അത് ഉപയോഗിക്കാത്തിൻ്റെ പരിചയക്കുറവ് പഴയ തലമുറക്കുണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യസത്തിനെ അന്തവിശ്വാസങ്ങളിലും കൂടുതൽ പഴയ തലമുറയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പുതിയ തലമുറ ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പഴയ തലമുറയിലെ അന്തവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്